ഹലോ ചാക്കോ ഏജൻസി അല്ലേ ഞാൻ അലക്സ് ബേക്കറീടെ ഓണറാണ് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഓഡറ് ചെയ്ത സാധനങ്ങളിൽ ചില ഐറ്റംസ് കുറവുണ്ടായിരുന്നു അപ്പം ഒന്ന് ബില്ല് ചെക്ക് ചെയ്തിട്ട് കുറവുള്ള സാധനങ്ങൾ ദയാവായിട്ടൊന്ന് ക്ലിയർ ചെയ്യുമോ ചില ഐറ്റങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസ് കുറവാണ് സോപ്പ് ഐറ്റംസ്ത്തിൽ ഒന്ന് രണ്ട് ഐറ്റം കുറവാണ് ഷാംപൂ ഐറ്റംസിൽ ഒന്ന് രണ്ട് ഐറ്റം കുറവാണ് ദയവായിട്ട് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ബേക്കപ്പ് ചെയ്യണം ദയവായിട്ട്